ഓ നീന്തല് കൊണ്ടുണ്ടാകുന്ന പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തില് നല്ല രീതിയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരണെങ്കില് നമുക്ക് നല്ല രീതിയിലുള്ള നീന്തല് കാര്യങ്ങള് കൊണ്ട് അവർക്ക് നല്ല രീതിയില് അതായത് ഉന്മേഷവനായിട്ട് ആയിട്ട് കഴിയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം എന്തെന്നു വച്ചുകഴിഞ്ഞാൽ ഈ നീന്തല് നമ്മളുടെ ശരീരം നല്ല രീതിയില് മസിൽസ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയും സഹായിക്കും പിന്നെ നമ്മുടെ ശ്വസനം അതാണ് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് കൂടുതലായിട്ടും വെള്ളത്തില് മുങ്ങി കിടക്കുക വെള്ളത്തില് നീന്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതില് നല്ല രീതിയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുഴയിലൊക്കെ അകപ്പെട്ടു കഴിഞ്ഞാല് നമുക്കിപ്പോൾ പെട്ടന്ന് നീന്തി രക്ഷപെടാനുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മള് നീന്തല് പഠിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ വീണാല് നമുക്ക് രക്ഷപ്പെടുത്താനുള്ളൊരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കൂടുതല് വരും നമുക്ക് നീന്തല് അറീ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് നല്ല രീതിയില് പഠിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള കായിക ക്ഷമതയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റുന്നതാണ് ഇപ്പോൾ നമ്മളെ ശ്വാസം നിയന്ത്രിക്കാൻ വരെ നമുക്ക് അത് സഹായിക്കും